നമ്മളീ ഗ്രാമ പ്രദേശം ആയത് കൊണ്ട് കുറ്റകൃത്യങ്ങൾ ഒക്കെ കുറവാണ് കാരണം വലിയ ഇതൊന്നും ഇല്ല അടി പിടി അങ്ങനെയൊന്നും ഇല്ല ചെറിയ വാക്കു തർക്കങ്ങൾ അത് അവിടെ കഴിഞ്ഞു പിന്നെ രാഷ്ട്രീയ പരാമർശം അത് എല്ലാ ഏത് ഗ്രാമമായിക്കോട്ടെ ഏത് സമൂഹമായിക്കോട്ടെ രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള വിദ്വേഷം എങ്ങനെയായാലും ഉണ്ടാകും രണ്ട് ഇപ്പം വാ രണ്ട് ഭരണം ആണല്ലോ ഒരു പ്രാവശ്യം പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സും മറ്റൊരു പ്രാവശ്യം പിന്നെ മാർക്കിസ്റ്റുകാരും ആയിരിക്കും അപ്പോൾ അവരുടേതായ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏച്ച് കെട്ടുണ്ടാകും പക്ഷേ കുഴപ്പമില്ല അതാത് അങ്ങനെ മുൻപോട്ട് പോകും പരിസ്ഥിതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറ അലക്ഷ്യമായി കുപ്പിയിൽ വെള്ളം ഒക്കെ കുടിച്ച് വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നോക്കേണ്ടത് കാരണം ഭൂമിയിൽ അതൊന്നും അലുത്തു പോകില്ല ഒരു വേസ്റ്റ് ബാസ്കെറ്റിൽ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കളെക്റ്റ് ചെയ്യാൻ പഞ്ചായത്തുകാർ തന്നെ പിന്നെ ആൾക്കാരെ ഏല്പിച്ചിട്ടുണ്ട് അങ്ങനെ അലക്ഷ്യമായിട്ട് അത് ഭൂമിക്ക് തന്നെ നാശമാണ് പിന്നെ ആരോഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇപ്പോൾ നിപ്പയൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല പണ്ടത്തെ പോലെ മാസ്ക് വെയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും നമ്മുടെ പിന്നെ മറ്റ് ജില്ലയിലെ പോലെ അല്ല കോഴിക്കോട്ടിൽ ഭയങ്കര രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസ് ആയിട്ട് മാറുകയാണ് നിപ്പ അപ്പം ഒരു കാലത്ത് വന്ന് എത്രയോ പേരുടെ ജീവനെടുത്തതാണ് നിപ്പ വൈറസ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട ഇതൊക്കെ പിന്നെ മുൻകരുതൽ ഒക്കെ എടുക്കാൻ പിന്നെ നമുക്ക് നമ്മുടെ എല്ലാവരും ഭരണഘടന മുന്നോട്ട് വന്ന് പഞ്ചായത്തുകാരും പിന്നെ ഹെൽത്തിൻ്റെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്